ഇപ്പം പറയുകയാണെങ്കിൽ ശാസ്ത്രത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യയിലാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിക്കുന്നത് അവരുടെ ഓരോരോ കണ്ടുപിടിത്തങ്ങളാണ് ഇപ്പം പറയുകയാണെങ്കിൽ ഇ നമ്മുടെ ജീവിതത്തിൽ നിത്യ നിത്യവും നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളും ഓരോ ആൾക്കാർ കണ്ടു പിടിച്ചതാണ് അതിപ്പം ശാസ്ത്രത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യയിലാണെങ്കിലും ഇപ്പം സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസന്തോ ദിവസം കൂടുന്തോറും ഓരോരോ പുതിയ കണ്ടെത്തലുകൾ വരുകയാണ് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുക പറയുകയാണെങ്കിൽ നമ്മളിപ്പം എല്ലാവരും തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് ഇപ്പം ആദ്യം എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ചെറിയ ഒരു കട്ടപ്പെട്ടി പോലത്തെ ഒരു ഫോണായിരുന്നു പിന്നത് ചെറിയ ടച്ച് ഫോണായി പിന്നത് വലിയ ഫോണായി ഇപ്പം ദേ ടാബ് കംപ്യൂട്ടർ ലാപ് ട്ടോപ് അങ്ങനെ ഓരോരോ ഇതിലേയ്ക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന രീതിയിലും നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുമാണ് ഇവരുടെ ഓരോരോ കണ്ടുപിടിത്തം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോരോ കണ്ടു പിടിത്തങ്ങൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ബൾബ് പിന്നെയെന്നു പറയുമ്പോൾ നമ്മളിപ്പം ലൈറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം പിന്നിലൊരു കണ്ട് പിടിത്തം ഉണ്ട് ഒരാളുടെ ഒരാളുടെ കുറേ നാളത്തെ പരിശ്രമവും അതിൻ്റെ വിജയവുമാണ് നമ്മളിന്ന് കുറേ കാ ഇന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതെല്ലാം നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പം നമ്മൾ പറയുകയാണേൽ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കുപോലും ഉറപ്പില്ല എന്താണ് ആദ്യം ഉണ്ടായതെന്ന് അപ്പം നമുക്ക് തന്നെ ഡൗട്ടാണ് ഇപ്പം മുട്ട ഉണ്ടെങ്കിലല്ലേ കോഴി ഉണ്ടാവുകയുള്ളൂ കോഴി ഉണ്ടായാലല്ലേ മുട്ട ഇടൂള്ളൂ ഇപ്പം ആ ഡൗട്ടാണ് അപ്പം നമുക്ക് തന്നെ ഡൗട്ട് തോന്നുന്നതാണങ്കിൽ പോലും നമ്മൾ നമ്മൾ കൂടുതലും നമ്മൾ ഇപ്പം ഭയങ്കര ക്യൂരിയസ് ആക്കുന്ന രീതിയിലുള്ള ഓരോരോ കണ്ടുപിടിത്തങ്ങളാണ് നമ്മളെ ഭയങ്കര അധികം ആകർഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ ഓരോരോ ഇപ്പം നമ്മൾ നമുക്ക് ഇവരിപ്പം കണ്ടു പിടിച്ച് തരുന്ന് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ തന്നെ നമ്മൾ ഒരുപാട് ഇത് വെച്ചിട്ടാണ് ഈ മൊബൈൽ ഫോണൊക്കെ കണ്ടുപിടിച്ച് വരുന്നത് അതുകൊണ്ടു നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുമുണ്ട് ഒരുപാട് മോശമായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് ഇപ്പം നല്ല ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം നമുക്ക് ഒരു ദൂരെ ഇരിക്കുന്ന ആളെ വീഡിയോ കോൾ ചെയ്ത് കാണണമെങ്കിൽ നമുക്കിപ്പം അടുത്ത് അയാളെ കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അയാളെ ഒന്ന് കാണണം എന്ന് തോന്നിയാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലേ എന്തെങ്കിലും മതി നമുക്ക് അവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് അവരെ സംസാരിക്കാൻ കഴിയും അല്ലേ നമുക്ക് ഒരാളുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ അയാൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അങ്ങനെ ഒരുപാട് ഉള്ള കാര്യങ്ങൾലും ഉണ്ട് ഇതെല്ലാമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യയിലാണെങ്കിലും എന്നെ ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്